പൊതുവേ നമ്മുടെ മലയാള ഭാഷയെ പറ്റിയിട്ട് എല്ലാവർക്കും ഉള്ള അഭിപ്രായം ഭയങ്കര വിഷമമാണ് പഠിയ്ക്കാനൊക്കെയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പോലും ഇംഗ്ലീഷ് മീഡിയം ചേർന്നിട്ട് ഇംഗ്ലീഷ് ആണ് പറയുന്നത് അപ്പം പിന്നെ പുറത്ത് നിൽക്കുന്ന പുറത്ത് താമസിച്ച് വിദേശത്തൊക്കെ വളർന്ന് വരുന്ന കുട്ടികൾ മലയാളം പഠിയ്ക്കാത്തതിനെ പറ്റിയിട്ടൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നാട്ടിലുള്ള നമ്മൾ പഠിയ്ക്കുന്നില്ലെ പിന്നവരെ എങ്ങനാ നിർബന്ധിക്കുക നാട്ടിലുള്ള നമ്മുടെ കുട്ടികൾ തന്നെ പരമാവധി ഇംഗ്ലീഷ് ആണ് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആക്കുക പക്ഷെയെങ്കിൽ മലയാളം വളരെ എളുപ്പമുള്ള ഭാഷയാണ് ചില വാക്കുകൾ ഇപ്പം മഴ ക്ഷ ഴ റ് എന്നൊക്കെ പറയുമ്പം ചിലവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതൊക്കെ നമുക്ക് ശ്രമിച്ചാൽ പറയാൻ പറ്റുന്നതേ ഉള്ളു ചെറിയൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടിൽക്കൂടി നമ്മൾ എന്താ പറയണെ ഇത്രയും മനോഹരമായ ഭാഷ വേറെ ഇല്ല മലയാളത്തോളം നമ്മുടെ ഒരു ഈ കേരളത്തിൽ തന്നെ എത്ര ഓരോ നാട്ടിലും ഓരോ ശൈലിയിലാണ് മലയാളം പറയുന്നത് കാസർകോഡ് എത്തി കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് കണ്ണൂർക്കാരുടെ മലയാളം വേറെയാണ് തൃശൂർക്കാരുടെ മലയാളം വേറെ ആണ് എറണാകുളത്തു പോയാൽ വേറെ ആണ് അപ്പം ഈ ഭാഷ പഠിയ്ക്കാൻ വിഷമമാണെന്നുള്ള ഒരു ധാരണ മുന്നേ എല്ലാവരും പറഞ്ഞ് വെച്ചതു കൊണ്ടായിരിയ്ക്കണം ഇപ്പോഴും അതിങ്ങനെ ആ യ്യൊ മലയാളമല്ലേയെന്ന് പറയുമ്പോൾ തന്നെ വിഷമമാണെന്ന് പഠിയ്ക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ചിന്ത വരുന്നത് അതൊന്നുമില്ല അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ എന്തായാലും വീട്ടിൽ നിന്നെങ്കിലും മലയാളം പറഞ്ഞ് പഠിപ്പിയ്ക്കണം അപ്പോൾ ഓരോ വാക്കുകൾ രണ്ട് വാക്കുകൾ തമ്മിലിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടിക്കായാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളെ കൊണ്ട് എന്തായാലും പഠിപ്പിയ്ക്കണം അത് നമ്മുടെ അഭിമാനമായിട്ട് കരുതണം മലയാളം പറയാൻ പറ്റുന്നത്